ഹലോ ഇത് റെസ്റ്റോറൻ്റല്ലേ ഇത് ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത് അറിയാവല്ലോ എന്നെ ഞാൻ സ്ഥിരം വിളിക്കാറുള്ള ഒരു കസ്റ്റമറാണല്ലോ ഹലോ ഞാൻ ലത എന്നും ഞാൻ ഓർഡർ ചെയ്യാറുണ്ടല്ലോ അപ്പവും മുട്ടക്കറിയും ആ അത് തന്നെയാണ് എനിക്ക് വേണ്ടിയത് പക്ഷേ ഇന്ന് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പം അവർക്ക് ഇച്ചിരി കൂടുതൽ എമൗണ്ട് വേണം അതായത് ഒരു ഇരുപത് അപ്പവും ഒരു നാല് മുട്ടക്കറിയും വേണ്ടി വരും അതുപോലെ ഉച്ചക്കത്തേക്കിനും ബിരിയാണി വേണ്ടി വരും അത് ഞാൻ അവർ വന്ന് കഴിഞ്ഞ ശേഷം എത്ര പേർക്ക് വേണമെന്നുള്ളത് വീണ്ടും ഞാൻ വിളിച്ച് പറയാം പിന്നെ മസാല ദോശ റെഡി ആയി കാണുവായിരിക്കുവോ ഇല്ലേ ആ റെഡിയായി റെഡിയായിട്ട് ഓർഡർ ചെയ്ത് തരുവോ അപ്പോഴേ കുട്ടികൾ രണ്ട് മൂന്ന് പേർ കുട്ടികൾ കാണുവായിരിക്കും അവർക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു അപ്പം അവർക്ക് ഒരു നാല് മസാല ദോശ കൂടെ റെഡി ആക്കിയേക്കാവോ അപ്പം ഞാൻ വിളിക്കാം കേട്ടോ ഓക്കെ